രാസ പദാർത്ഥങ്ങൾ ഉപയോഗം മണ്ണിനെ ഒക്കെ നല്ലോണം ബാധിക്കുന്നുണ്ട് കാരണം രാസപദാർത്ഥങ്ങൾ ആയിട്ടുള്ള വസ്തുക്കൾ മണ്ണിൽ ചേരുമ്പോൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഗുണമില്ലാത്ത മണ്ണു പോലെയാണ് പൊതുവെ കാണപ്പെടുന്നത് പകരം ജൈവ ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് എങ്കിലും നമുക്ക് ഒന്നു കൊണ്ടും മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ ഓട് ഫലപുഷ്ടത ഉണ്ടാവും പക്ഷേ രാസ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ആ മണ്ണിൻ്റെ ഫലപുഷ്ടത കുറയുകയാണ് ചെയ്യുന്നത് പിന്നെ അത് നമ്മളെ ആരോഗ്യത്തിനും നല്ലത് അല്ല

പിന്നെ കാസർകോഡൊക്കെ ഉണ്ടായിരുന്ന എൻഡോസൾഫാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടതാണല്ലോ ആ അതുപയോഗിച്ചിട്ട് അവിടെ കുട്ടികളുടെയൊക്കെ തല ഒക്കെ വലുതായി അങ്ങനത്തെ ഫോട്ടോകളൊക്കെ കാണുന്നതാണ് അത് ഇപ്പോഴും ആ അവിടത്തെ ആൾക്കാർ ഉന്നയിക്കുന്ന പ്രശ്നമാണ് എൻഡോസൾഫാൻ ഉപയോഗിച്ചിട്ട് പിന്നെ അതിനേക്കാൾ നല്ലത് ജൈവ വളമാണ് നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവുകയും ഇല്ല മണ്ണിനും പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാനും പറ്റും